ആ ഹലോ ആ ഞാൻ പ്ലസ് ടൂ ഗ്രാജുവേറ്റ് അല്ല പ്ലസ് ടൂ കഴിഞ്ഞു നിക്കുവായിരുന്നു അപ്പം എനിക്ക് ഇതിനെപ്പറ്റി ഐഎസ്ആർഓ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ താൽപ്പര്യം ഉണ്ടായിട്ട് അതിനെപ്പറ്റി കുറച്ചുകാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ കോൾ ചെയ്യുവാണെ ഇപ്പം എനിക്കിപ്പം അതിന് പോകണമെങ്കിൽ ഞാൻ പ്ലസ് ടൂവിൽ ബയോമാത്സ് ബയോളജി അങ്ങനെ ഞാൻ സ്പെസിഫിക് ആയിട്ടൊന്നും തീരുമാനിച്ചിട്ടില്ല ഇതുവരയും അതിനെപ്പറ്റിയൊക്കെയൊന്ന് ജോബുകൾ എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ടെന്നു അറിയാൻ വേണ്ടിയാണ് ഞാൻ കോൾ ചെയ്തത് ആ അപ്പം എനിക്കിപ്പം വേ വേറെ കുറച്ചു കാര്യങ്ങളും കൂടെ എന്ത് ഏതു ഡിഗ്രിയിപ്പം എന്താണ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതിൻറെ ഒരു ബേസിക് കാര്യങ്ങളെന്തെങ്കിലുമൊന്ന് ബി എസ്സി അത് അതാണോ ഉദ്ദേശിക്കുന്നത് ബി എസ്സി അങ്ങനത്തെ ഓക്കേ ഓക്കേ ആ ആ ആ അപ്പം ഈ ഈ നമ്പറിലേയ്ക്ക് ഈ നമ്പറിലേയ്ക്ക് അതിൻറെ കൂടുതൽ കാര്യങ്ങൾ ഹലോ കേൾക്കാവോ ഹലോ ആ ആ ഡീ ഡീ പി എന്തോ പറഞ്ഞിരുന്നല്ലോ ഹലോ എൻ്റെ പേര് എൻ്റെ പേര് ദേവിക പി ആർ ആ പ്ലസ് ടൂ കഴിഞ്ഞിട്ട് നിൽക്കുന്നു ആ ഓക്കേ ഓക്കേ ആ അപ്പം ഞാൻ ഇതിലേയ്ക്ക് ഒന്നയച്ചേക്ക് കേട്ടോ ഓക്കേ ശരി